നിങ്ങൾ ഡാൻസ് റീലുകൾ ഷോർട്ട്സ് കാണാറുണ്ടോ സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നർത്തകർ ആരാണ് അപ്പോള് ശരിയാണ് ഞാൻ ഇപ്പോള് ഒരു ഞാൻ ഞാൻ റീൽസെയ്യുന്ന ആളാണ് ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കുന്ന ആളാണ് ഞാനീ റീൽസ് ഇടാറുണ്ട് ഷോട്സ് ഇടാറുണ്ട് അപ്പോള് എനിക്കീ നൃത്തം ഈ ഡാൻസും കൊണ്ടൊരു ഇത് ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ സ്കൂളുകളിലാണേലും കോളേജുകളിലാണേലും ഡാൻസ് ചെയ്യാറുണ്ട് ഡാൻസ് കോമ്പറ്റീഷന് പോകാറുണ്ട് സ്കൂളിലുള്ള ഓരോ പരിപാടികളിൽ ഞാൻ ഡാൻസിനു മുന്നിൽ നില്ക്കാറുണ്ട് അപ്പോള് കാരണം ഡാൻസെന്നൊരു ഇത് എനിക്ക് ഭയങ്കര ഒരു താൽപര്യം സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഡാൻസെന്നു പറയുന്ന കാര്യം ഡാൻസെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കോളേജിൽ ഞാൻ ഓരോ പരിപാടികളും ഞങ്ങൾ ഓരോ പരിപാടി ഡാൻസെന്നു പറഞ്ഞ പ്രോഗ്രാം ഞങ്ങള് ഫസ്റ്റ് വയ്ക്കും ഡാൻസ് ഞങ്ങൾ ഉറപ്പായിട്ടും കളിക്കും ഡാൻസുകള് വയ്ക്കാറുണ്ട് ഞങ്ങൾ ഡാൻസ് ഉറപ്പായിട്ടും കളിക്കുന്നതാണ് അപ്പോള് ഈ സോഷ്യൽ മീഡിയ റീൽസായിട്ട് പ്രിയപ്പെട്ട ഒരു നർത്തകിയാരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് നടന്നിട്ടുണ്ടെങ്കില് അതിനകത്തേറ്റവും പറയുന്നത് ഹൻസുഭി എന്നു പറഞ്ഞൊരു ഒരു ഐ മീൻ എൻ്റെയൊക്കെ ഒരേജാണ് ഏജാണ് അപ്പോള് എനിക്കാ ഡാൻസ് ഭയങ്കര റീൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോള് ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ വ്യക്തിയാണ് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിന്നൊരു ഒരു ഒരു പേഴ്സണലായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ് ഡാൻസ് കാരണം ഞാൻ സ്കൂളുകളിലായിക്കോട്ടെ ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിലായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ എനിക്ക് ഡാൻസെന്നൊരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പോള് നമുക്കാണേൽ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ റീൽസിലായിക്കോട്ടെ ഇപ്പോള് എല്ലാവരും റീൽസായിട്ട് ഡാൻസാണ് ഇപ്പോള് എല്ലാവരും അത്യാവശ്യം ഒരു ഹിറ്റ്സൊക്കെ ആയാലും വ്യൂസും ലൈക്സുമൊക്കെ ഏറ്റവും കൂടുതല് മേടിക്കുന്നത് ഡാൻസുകളിലൂടെയാണ് നൃത്തത്തിലൂടെയാണ് എല്ലാവരും ഇതൊക്കെയും ഒരു ഈ ഡാൻസിലൂടെയാണ് കുറച്ചു പേരെ ആൾക്കാര് അറിയപ്പെടുന്നത് ഈ ഡാൻസിലൂടെയാണ് ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസിന് വേദി നമുക്ക് ഒരുക്കിത്തരുന്നത് ആ ഒരു കല മാത്രമല്ല ബന്ധങ്ങളാണ് സുഹൃത്തുക്കളാണ് പരിചയപ്പെടലാണ് ഒരു നമ്മുടെ ഒരു ഇതിൽ മാറിത്തരുന്നത് അപ്പോള് ഡാൻസെന്നു പറഞ്ഞൊരു ഡാൻസെന്നു പറഞ്ഞൊരു കല നമുക്കു തരുന്നത് ഒരു ഒരു കല മാത്രമല്ല അതിനുപരി നമുക്കു തരുന്ന കുറേ ബന്ധങ്ങളാണ് കുറേ ഒരു കണക്ഷൻസാണ് അപ്പോള് ആ ഒരു കല നമ്മള്ക്കു തരുന്ന പല രീതിയിൽ നമുക്കത് ഉപകാരപ്പെടുന്നുമുണ്ട് നമ്മുടെ ജീവിതത്തില് അത് നമ്മള് ആദ്യം നമ്മള് മനസ്സിലാക്കേണ്ടതാണ് അപ്പോള് ഈ റീൽസായിക്കോട്ടെ ഇപ്പോള് റീൽസെയ്യുന്നു കുറച്ച് ഹിറ്റാവും ചിലപ്പോള് ആ ഒരു ആ ഒരു റീൽസ് ചെയ്ത് ആ ഒരു ഡാൻസ് ചെയ്ത് ചിലപ്പോള് നമുക്ക് ഏതെങ്കിലും സിലിം ഫിലിം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കില് എന്തെങ്കിലും ഒരു നല്ലൊരു ഡാൻസിലോ എല്ലാം നമുക്കൊരു പങ്കെടുക്കാനല്ലേ നമുക്കൊരു അതിനകത്ത് നമുക്കു ചേരാൻ പറ്റുന്നൊരു ഒരു ഒരു സോഷ്യൽ മീഡിയയാണ് ഈ ഒരു കാലഘട്ടത്തില് വളർന്നു വരുന്നതുതന്നെ അപ്പോള് അതനുസരിച്ചുള്ള ഇത് വേണം ഡാൻസെന്നു പറഞ്ഞൊരു ഇതൊരു ഡാൻസ് മാത്രമല്ല ഡാൻസല്ലേ എന്നൊരാൾക്കാര് ഒരു ബോധം ആ ഒരു അതു മാറ്റിച്ചിന്തിക്കേണ്ട സമയമാണ് കാലഘട്ടം അതിനി നമ്മള് മാറ്റിച്ചിന്തിക്കേണ്ടതാണ് ഡാൻസ് എന്നു പറയുമ്പോൾ നമ്മക്കും ഒരു ഒരു വ്യക്തിപരമായൊരു താൽപര്യ പ്രകാരം ആ ഒരു നമ്മള് കളിക്കുന്നതാണ് അത് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മള് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കും നമ്മള് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കുന്നു അതു നമ്മുടെ വ്യക്തിപരമായ ചിന്തയാണ് അപ്പോള് അത് ആൾക്കാര് ഷെയറേയ്യുന്നു ആൾക്കാര് കാണുന്നു ആൾക്കാരത് ഇഷ്ടപ്പെടുന്നു അത് ഫോർവേഡേയ്യുന്നു ലൈക്കേയ്യുന്നു കമൻറ്റേയ്യുന്നു ഷെയറേയ്യുന്നു അത് ആൾക്കാര് ഇഷ്ടപ്പെടും അപ്പോള് ആൾക്കാര് പിന്നീട് വെയ്റ്റ് ചെയ്യും നമ്മള്ക്ക് നമ്മുടെ ആ ഒരു ഡാൻസിനു വേണ്ടി അപ്പോള് ഈ റീൽസിട്ട് ആൾക്കാരെ അറിയിക്കും നമുക്ക് അങ്ങനെ കുറേ ബന്ധങ്ങള് കണക്ഷൻസൊക്കെ ഉണ്ടാക്കുക അപ്പോള് കസ്റ്റമറിന് ഇപ്പോള് ഈ റീൽസും ഈ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉള്ള ഷോർട്ട്സൊക്കെ വരുന്നത് എന്തുകൊണ്ടും ഉപകാരങ്ങളാണ് ആൾക്കാരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നൊരു ഒരു വേദിയാണ് സത്യം പറഞ്ഞാല് ഞാൻ അതിൽ ഞാൻ സത്യം പറഞ്ഞാല് അത് കാണുന്നത് ഒരു വേദിയായിട്ടാണ് നമ്മുടെ ഒരു കഴിവു തെളിയിക്കാനുള്ളൊരു വേദിയായിട്ടാണ് ഞാൻ ഈ ഒരു റീൽസിനും ഷോർട്സിനും ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ കാണുന്നത് കാരണം നമ്മുടെ ഒരു കാരണം ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മളീ ഈ ടിക്ക് ടോക്ക് പോലുള്ളൊരു വേദിയിലൂടെയാണ് പലേ ആൾക്കാരുടെ കഴിവുകളും ഈ നൃത്തങ്ങളും ഈ അഭി ഇതെല്ലാം നമ്മള് കണ്ടത് ഈ ഈ ഈ ഈ സോഷ്യൽ മീഡിയ എന്ന വേദികളിലൂടെ അപ്പോള് ഈ വേദികൾ നമുക്ക് പലത് ഉപകാരങ്ങൾ നൽകുന്നുണ്ട് കാരണം ആ ഒരു സമയത്ത് ആ ഒരു പേജിൽ നിന്നും പോയ ആളുകൾ പല ആൾക്കാര് ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്കേയ്യുന്നുണ്ട് ഡാൻസെന്ന ഒരു കൊറിയോഗ്രാഫിയിൽ വർക്കേയ്യുന്നുണ്ട് അപ്പോള് എത്രത്തോളം അത് ഉപകാരപ്പെട്ടു ആ സമയത്ത് അതാണ് നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത് സാധാരണ ആ ഒരു വേദികൾ നമുക്ക് പല രീതിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ